കരയിൽ നിന്നും അകലെ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ആഴമുള്ള സ്ഥലങ്ങളായിരിക്കാം അപ്പോൽ അവിടെ ഇറങ്ങുന്നവർ സൂക്ഷിക്കുക അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള പാറകൾ പായൽ കെട്ടിയ ഇടത്ത് ശക്തമായ ഒഴുക്കുള്ള അടുത്തൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം എത്ര നീന്തൽ പഠിച്ചവർ ആയാൽ പോലും ചില ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ നീന്തി കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് സാധ്യമാവാറുണ്ട് അതുകൊണ്ട് നീന്തൽ അറിയാവുന്നവരും നീന്തൽ അറിയാത്തവരും ലൈഫ്സ് ജാക്കറ്റ്സ് യൂസ് ചെയ്യുക ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്ത് മാത്രം വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുക അങ്ങനെ ലൈഫ് ജാക്കറ്റ്സ് യൂസ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവന് അപായം കുറയും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് അധികം താഴ്ന്ന് പോകാതെയും ലൈഫ് ജാക്കറ്റ്സ് സംരക്ഷിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് കരണവശാൽ ഏത് കാരണവശാലും ലൈഫ് ജാക്കറ്റ്സ് യൂസ് ചെയ്ത് മാത്രം കുളിക്കാനും വെള്ളത്തിലും ഇറങ്ങുക എത്ര നീന്തലറിയാവുന്നവർ പോലും ലൈഫ് ജാക്കറ്റ്സ് യൂസ് ചെയ്യുക അത് അവരുടെ ജീവൻ തന്നെ രക്ഷിക്കും